ഫോട്ടോഗ്രാഫി ഒരു ജോബായിട്ട് എടുക്കണമെങ്കിൽ അതിനാദ്യം വേണ്ടത് ഫോട്ടോഗ്രാഫിയുടെ ഒരു ക്രേയ്സാണ് ക്രേയ്സും പാഷനുമാണ് വേണ്ടത് അതിൽ നിന്ന് നമ്മൾ സക്സസ് ആകാണെങ്കിൽ നമുക്കീ ഫോട്ടോഗ്രാഫി ഫീൽഡിൽ വളരെയധികം ഹാപ്പിയായിട്ട് നമുക്ക് ലൈഫ് ടൈം ഫുൾ നമ്മൾ എൻജോയ് ചെയ്ത് വർക്ക് എടുക്കാം അതിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രഫി പറയുകയാണെങ്കിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഇപ്പം ഇന്നീ തരത്തിലുള്ള ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള കല്യാണങ്ങൾ അവരുടെ ലൈഫ് ഫുൾ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അതിൽ കവർ ചെയ്ത് അവരുടെ ലൈഫിലെ എപ്പോഴും കണ്ടു കൊണ്ടിരിക്കുന്ന ഒരു മൊമെൻ്റായിട്ടാണ് പിന്നെയും പിന്നെയും ആ ഒരു നടന്ന സംഭവം പിന്നെ ആ ഒരു വീഡിയോയിലൂടെ ഫോട്ടോയിലൂടെ കാണുമ്പം കാണുന്നവരുടെ ഉള്ളിലെ ഒരു സന്തോഷമാണ് ഫോട്ടോഗ്രാഫിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷവും ആ ഫോട്ടോഗ്രാഫർക്ക് ആ ഫോട്ടോഗ്രാഫി ആ ഫോട്ടോ എടുത്ത ആൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്നു പറയുന്നത് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുള്ള കാലഘട്ടമാണിപ്പോൾ അപ്പോൾ പലതരത്തിലുള്ള ക്യാപ്ച്ചറുകൾ നമ്മൾ കവർ ചെയ്യുമ്പോൾ കസ്റ്റമർക്കതൊരു വലിയ സന്തോഷമായിരിക്കും കസ്റ്റമറുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം അങ്ങനെയാണ് ഈ ഫീൽഡിൽ ഈ ഫീൽഡിൽ ഇഷ്ടപ്പെട്ടു ചെയ്യുകയാണെങ്കിൽ ഈ ഫീൽഡിൽ ഭയങ്കര സക്സസ് ആയിരിക്കും ഉണ്ടായിരുന്നത് കാരണം പറയുകയാണെങ്കിലൊരു വ്യക്തിയുടെ ഉള്ളിലിറങ്ങി ചെന്ന് അവരുടെ ഡീറ്റെയിൽസ് ഫുൾ കളക്ട് ചെയ്ത് അവരുടെ ക്യാൻഡിഡ്സ് ക്യാൻഡിഡ്സ് കവർ ചെയ്ത് അവരുടെ ഓരോരോ മൊമെൻ്റ്സ് ഷെയർ ചെയ്തത് അങ്ങനെ ഒരു ആൽബം അല്ലെങ്കിൽ വീഡിയോ വീഡിയോ ഒരു അഞ്ച് മിനിറ്റ് ഒരു വെഡ്ഡിങ്ങെടുക്കുകയാണെങ്കിലതിന് മെയിനായിട്ടു വേണ്ടത് വീഡിയോയും ഫോട്ടോയാണ് അതിൽ വീഡിയോഗ്രാഫർക്ക് അവർക്ക് അവരുടെ ഓരോ മൊമെൻ്റ്സ് കുഞ്ഞു കുഞ്ഞു ഹാപ്പിനെസ്സ് അവരുടെ ഇമോഷൻസ് വീട്ടുകാരുടെ ഹാപ്പി ഫാമിലി ഗ്രൂപ്പ് റിലേറ്റീവ്സ് ഇതെല്ലാം ഉൾക്കൊണ്ട് പിന്നെ ആ മണ്ഡപത്തിലെടുക്കുമ്പോഴുള്ളൊരു ആ പള്ളിയിൽ പള്ളിയിൽ പള്ളിയിലുള്ള ചടങ്ങ് പിന്നെ കെട്ട് കെട്ടുന്ന ചടങ്ങ് ഇതൊക്കെ ഒരു പ്രാവശ്യം സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതു പിന്നെയും പിന്നെയും ആ ഒരു മൊമെൻ്റ് കളയാതെ അത് പിന്നെ പിന്നെയും നമുക്കൊരു ആൽബത്തിലൂടെ ഒരു നമുക്കൊരു വീഡിയോയിലൂടെ കാണുമ്പം അതു വളരെയധികം സന്തോഷമാണ് അത് പിന്നെയത് അത് ഗ്രേഡ് ചെയ്യുമ്പോൾ അതു വളരെ മനോഹരമാകുന്നു വീഡിയോക്കാ വീഡിയോക്കകത്താണെങ്കിലും ഓഡിയോ ഓൺ വോയിസിലാണെങ്കിലും സംസാരിക്കുന്നതും എല്ലാം ആ ഒരു വെഡ്ഡിങ്ങിൻ്റെ ഏ റ്റൂ ഇസെഡ് കാര്യങ്ങൾ ഏ റ്റൂ ഇസെഡ് കാര്യങ്ങളുടെയും കടമ ചെയ്യുന്നത് വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറുമാണ് അതിൽ ആ ഒരു സന്തോഷമാണ് ഈ വീഡിയോഗ്രാഫറുടെയും ഫോട്ടോഗ്രാഫറുടെ ഏറ്റവും വലിയ സന്തോഷമെന്നു വെച്ചാൽ അവർക്ക് അവർ മേടിക്കുന്ന പൈസയോട് അല്ലായിരിക്കും അവർ കൂറ് അവരാ ഫാമിലിയുടെ വർക്ക് ഏറ്റെടുക്കുമ്പോൾ ആ വർക്ക് അവർക്ക് നല്ല രീതിയിലെങ്ങനെ എത്തിച്ചു കൊടുക്കാം എത്തിച്ച് അവരുടെ സന്തോഷം എങ്ങനെ കാണുന്നു അതാണ് എടുക്കുന്ന ആളുടെ സന്തോഷം അവിടെ നിന്ന് എല്ലാ തരത്തിലുള്ള കണക്ഷൻസും നമുക്ക് കിട്ടുകയാണ് ആ ഒരു വർക്ക് നമുക്കെടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് കുറേ വേരിയൻസ് നമുക്ക് കിട്ടും ഒരു വീട്ടിൽ നമ്മൾ വർക്ക് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ വർക്ക് ഇഷ്ടപ്പെട്ട് കണ് കണ്ട് ഇഷ്ടപ്പെട്ട് ഇട ഇഷ്ടപ്പെടുന്നവർക്ക് അവർ നമ്മളെ റിലേറ്റീവ്സ് ആയിരിക്കാം എനിക്കാ കല്യാണത്തിന് ഗസ്റ്റായിട്ട് വന്ന ഓരാളായിരിക്കാം പലതരത്തിലുള്ള ആൾക്കാരായിരിക്കും അവർക്ക് നമ്മളെ കാണുമ്പം ഇവർക്കൊരു വർക്ക് കൊടുത്താൽ ഇതിലും മനോഹരമായിട്ടെൻ്റെ വർക്ക് എടുക്കാം എൻ്റെ മോളുടെ അല്ലെ മോൻ്റെ വെഡ്ഡിങ്ങ് അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് മാമോദിസ ആദ്യ കുർബാന നൂല്കെട്ട് ഇങ്ങനത്തെയുള്ള ഓരോരോ വർക്കുകൾ കിട്ടും ഒരാളെ കണ്ടിട്ടല്ല അവരുടെ വിലയിരുത്തേണ്ടത് അവരുടെ കഴിവിനെ ആണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് അത് ഇഷ്ടപ്രകാരം ചെയ്യുമ്പം അതു വളരെയധികം മനസ്സിന് സന്തോഷമായിരിക്കും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു ചെയ്യുന്ന ജോലിയിലൊരു ഒരു ഒരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ടായിരിക്കത്തില്ല ഫോട്ടോഗ്രാഫി ഒരു തൊഴിലായി ഏറ്റെടുക്കുന്നതിൽ എനിക്ക് വളരെയധികം യോജിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഞാൻ ഈ ഒരു വെഡ്ഡിങ്ങ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി വർക്ക് എടുക്കുന്ന ഒരാളാണ് അതു കൊണ്ട് എനിക്ക് ഈ ഒരു ടോപ്പിക്ക് കിട്ടിയത് എനിക്ക് വളരെ സന്തോഷമുണ്ട് താങ്ക് യൂ